നീന്തുമ്പോൾ നമുക്ക് എപ്പോഴും ശ്വാസം പിടിച്ചു വയ്ക്കാനുള്ള ഒരു കഴിവാണ് ഉണ്ടാവുക നമുക്കിപ്പോൾ ഒരു ഒരു കിലോമീറ്റർ നമുക്ക് നീന്തണമെങ്കിൽ നമ്മളെന്തായാലും ശ്വാസം അത്ര കുറച്ചു നേരമെങ്കിലും പിടിച്ചു വച്ച് മെല്ലെ മെല്ലെ റിലീസ് ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് നീന്തിപ്പോവാൻ ഇപ്പോൾ അക്കരെ കടക്കണമെങ്കിലും അങ്ങനെതന്നെയാണ് അതിപ്പം നമ്മളൊരു പുഴ നീന്തി കടക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം ഇപ്പം നീന്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമ്മുടെ ശരീരത്തിനും നല്ലതാണ് ശ്വാസം എന്താ പറയുക ശ്വാസം നമുക്ക് കുറച്ചു നേരം ഇപ്പോൾ എന്തെങ്കിലും ആവിശ്യത്തിന് നമ്മളിപ്പോൾ ഒരു പുഴയിൽ മുങ്ങിപ്പോയാലും നമ്മൾക്കിപ്പം കുറച്ചു നേരമെങ്കിലും നമ്മൾക്ക് ശ്വാസം പിടിച്ചു വച്ച് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരുന്നതുവരെയെങ്കിലും നമ്മൾക്ക് ശ്വാസം പിടിച്ചു വയ്ക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവും അതു കാരണം എന്താ പറയുക നമുക്ക് അതിൻ്റെകൂടെ ആ അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം ഇപ്പം അഥവാ കുറച്ച് നീന്തിക്കഴിഞ്ഞാൽ എത്തുമെങ്കിലും നമുക്ക് ശ്വാസം പിടിച്ചു വച്ചിട്ട് നമുക്ക് നീന്താം കാരണം ഇതൊക്കെ നല്ല കാര്യം ആയിട്ടാണ് തോന്നുന്നത് എന്തായാലും ശാരീരികക്ഷമത നമുക്ക് കൂടുതലായിരിക്കും പിന്നെ നമ്മളെ കയ്യ് കാലുകളൊക്ക നല്ല രീതിയിൽ പ്രവർത്തിക്കും നമുക്ക് നല്ലോണം വിശക്കും അതായത് നമ്മൾ നീന്തൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടന്ന് വിശക്കാൻ തുടങ്ങും നീന്തി കയറിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടന്നു ഭക്ഷണം കഴിക്കും അതായത് നമുക്ക് നമ്മൾ വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് നീന്തുക നമുക്ക് പെട്ടന്ന് ശാരീരികക്ഷമതയും നമ്മുടെ മസിൽസ് ഒക്കെ വളരാനുള്ള ഒരു കാരണമായിട്ട് മാറും അങ്ങനെ ഈ സിക്സ് പാക്ക് കയ്യിൻ്റെ മസിൽ ഇതൊക്ക ഈ നീന്തുന്നതുകൊണ്ട് ഉണ്ടാവും